ഹലോ ഹലോ അതേ ആ പറയൂ ആ നമ്മുടെ സാംസ്കാരിക ആഘോഷങ്ങളെന്ന് പറയുന്നത് ഓണം ക്രിസ്മസ് വിഷു ശിവരാത്രി തൃശ്ശൂർ പൂരം ആറ്റുകാൽ പൊങ്കാല വലിയ പെരുന്നാൾ വള്ളംക്കളി എന്നിവയൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ വരുന്ന ഏത് സമയത്താണെന്ന് അറിഞ്ഞാലെ നമുക്ക് അതിനൊക്കെ എപ്പോഴൊക്കെയാണ് ഏതൊക്കെ പരിപാടികളാണെന്ന് പറയാൻ പറ്റുള്ളു നിങ്ങൾക്ക് ഏത് ആഘോഷം കാണാനാണ് താല്പര്യം ആ അതെ അതെ ഒക്ടോബർ മാസത്തിലൊക്കെയാണ് ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആവുമ്പോൾ ഓണമാണ് ഓണം ഭയങ്കര വലിയ സെലിബ്രേഷനായിട്ടാണ് ഇവിടെ നടത്തുന്നത് പത്ത് ദിവസത്തെ പരിപാടിയാണ് വരുന്നത് പുലി പുലിക്കളിയും താലപ്പൊലി ചെണ്ടമേളം പിന്നെ പൂക്കളമത്സരം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കര വലിയ ഫംഗ്ഷനാണ് നമ്മുടെ കേരളത്തിൽ നടക്കാറ് ആ ദീപാവലി നമ്മൾക്ക് ഒരു ദിവസത്തെ പരിപാടിയാണ് വരുന്നത് അത് രാത്രിലായിരിക്കും ആഘോഷം അമ്പലത്തിലിപ്പം ഇതൊക്കെ ആയിരിക്കും പക്ഷെ ഓണം പോലെ അല്ല ഓണം നമ്മുടെ എല്ലാ മത ജാതി ഭേദവും ഇല്ലാണ്ട് എല്ലാരും കൂടി ആഘോഷിക്കുന്ന പരിപാടിയാണ് മറ്റെതൊക്കെ ഓരോരുത്തരുടെ മതത്തിന് അനുസരിച്ച് മാറുന്നുണ്ട്

സെറ്റിൽമെൻ്റ് അപ്പോൾ നിങ്ങൾ എത്ര ദിവസത്തെ പരിപാടിയായിട്ട് വരും ആ നിങ്ങൾക്ക് താമസവും സൗകര്യവും ഒക്കെ നോക്കും ഭക്ഷണം ഫുഡ്ഡ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യും ആ ഒരു മാസത്തെ അപ്പോൾ ഫുൾ ഓൾ കേരള പരിപ്പാടി ഫുള്ള് ബുക്ക് ചെയ്യട്ടെ ആ ശരി ഓക്കെ ഓക്കെ ശരി കഴിഞ്ഞു